ഇന്നിപ്പോൾ ഞാൻ താമസിക്കുന്നത് പാലക്കാടാണ് അപ്പോൾ പാലക്കാട് എനിക്ക് തോന്നുന്നത് കൽപ്പാത്തി രഥോത്സവം എല്ലാവർക്കും പേര് കേട്ടിട്ടുള്ളതാണ് അപ്പോൾ അതിലേക്ക് നമ്മൾ രഥോത്സവത്തിൽ ഒരുപാട് പേര് എത്രയോ കൊണ്ട് രണ്ടോ മൂന്നോ ദിവസം കൊണ്ടാണ് നമ്മളത് സെലിബ്രേറ്റ് ചെയ്യുന്നത് അപ്പോൾ അത് കാണാനായിട്ട് പല സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ വരാറുണ്ട് വിദേശ വിദേശികളും വിദേശികളും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ആൾക്കാർ വരാറുണ്ട് അത് ചെറിയൊരു പൂരം അപ്പം പോലെയൊക്കെ തന്നെ നന്നായി ആഘോഷിക്കാറുണ്ട് പിന്നെ ഞാനൊരു തൃശ്ശൂർകാരിയാണ് തൃശ്ശൂർകാർ പറയണ്ടല്ലോ തൃശ്ശൂർ പൂരം അത്രയും പ്രസിദ്ധമായ പൂരമാണ് അപ്പോൾ അതിലൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് അതിലേക്കും നന്നായി ആൾക്കാരെ വിദേശികൾ ഒരുപാട് വരുന്നുണ്ട് അത്കൊണ്ട്തന്നെ ഓരോ ദിവസവും ചെന്ന് കയറുമ്പോൾ പൂരത്തിൻ്റെ പെരുമ കൂടി കൂടി വരികയാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ വെടിക്കെട്ടാണ് അപ്പോൾ അതൊക്കെ നമ്മൾ പേര് കേട്ട ഒന്നും കൂടി ഒന്നു ഇതായിവരികയാണ്